ബാങ്കിൽ നിന്ന് ലോണ് ഞാൻ എടുക്ക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ബാങ്കിൽ നിന്ന് ലോണെടുക്കണ്ട ഒരാവശ്യം വന്നു കാരണംന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപ ആയിട്ട് അതിൻറ്റടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ ആവശ്യം വന്നിട്ടുണ്ട് അത് അറ്റ് എ ടൈം നമുക്ക് എടുകാനുള്ള കാശില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തന്നെയാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ അടച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അനുഭവമെന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ ഞാൻ എടുത്തത് നമ്മുടെ നല്ല അടുത്തുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെയാണ് ഫോ ലോണും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ പഠനത്തിന് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞപ്പോൾ അവര് കുറച്ചും കൂടെ അതായത് സാധാ ലോണിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്ക് അവര് അതിൻ്റെ കാര്യം ഇപ്പോൾ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എന്താ പറയുക പെട്ടെന്ന് സ്പീഡാക്കി തന്നു കാരണം പഠിക്കണ്ട ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ആൾക്കാരും പഠിപ്പാണ് അതിൻ്റെ ഒര് ആവശ്യകത ആകുമ്പോൾ അവര് പെട്ടെന്ന് ചെയ്തുതരും ഇപ്പോൾ വേറെ ലോണ് പോലെ കുറച്ച് ലാഗ് ആക്കുകയോ അങ്ങനൊന്നും ചെയ്യില്ല സാധാ ലോണ് പോലെ സമയം വൈകിപ്പിക്കുക ഇത് മറ്റത് നമ്മടെ എഡ്യൂക്കേഷൻ്റെ ലോൺ ആകുമ്പോൾ അവര് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നല്ല സീ സ്പീഡാക്കി പാസാക്കി തരും അപ്പോൾ ഇനി കൃത്യ സമയത്ത് അതിൻ്റെ ലോൺ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു